അയ്യോ ഞാനൊരു റൈസ് കുക്കർ വാങ്ങിച്ചു എന്തു നല്ല ഉപകാരമാണെന്നറിയുവോ അത് ഞാൻ പണ്ടേ എപ്പോഴും വിചാരിക്കുവായിരുന്നേ റൈസ് കുക്കർ വേണമെന്ന് കാരണം അമ്മയൊക്കെ ഇങ്ങനെ അടുപ്പിലൊക്കെ പാത്രമൊക്കെ വെച്ചിട്ട് ഇത് കത്തിച്ച് എത്ര കഷ്ട്ടപ്പെടുന്നു എന്നിട്ട് ഈ വെള്ളം തിളയ്ക്കണം ലാസ്റ്റ് അരിയിടണം ഓരോരോ സമയമെടുത്ത് അരമണിക്കൂർ ഒരുമണിക്കൂർ ഒക്കെ അതിനിടെ എവിടെയെങ്കിലും അങ്ങോട്ട് നീങ്ങിയെങ്കിൽ ഈ അടുപ്പിലെ സാധനം കെട്ടിട്ട് പോയിട്ടുണ്ടാകും തീയെല്ലാം കെട്ടിട്ടുണ്ടാകും അപ്പം എങ്ങനെ മണിക്കൂറുകൾ നമ്മൾ അടുപ്പിൻ്റെ മുന്നിക്ക തന്നെ നിൽക്കുന്ന ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഈ റൈസ് കുക്കർ വാങ്ങിച്ചത് ഗ്യാസിൽ ഇത് അതൊന്ന് കത്തിച്ച് പത്തു മിനുട്ട് വേണ്ട ആ വെള്ളം തിളയ്ക്കാൻ ആ പത്തു മിനുട്ടുകൊണ്ട് അരിയിട്ടു കഴിഞ്ഞാൽ നല്ല സുഖ സുന്ദരമായിട്ട് അതൊന്ന് തിളയ്ക്കും വാങ്ങിയിട്ട് ഈ കുക്കറിൻ്റെ ആ പാത്രത്തിലേക്ക് അവിടെ വയ്ക്കും അത് കഴിഞ്ഞ് ഒരു പത്തു മിനുട്ടുകൊണ്ട് നല്ല അടിപൊളി ചോറ് റെഡി ആകും എത്ര ഉപകാരമാണെന്നറിയുവോ എനിക്ക് ഈ റൈസ് കുക്കർ ഭയങ്കര ഇഷ്ട്ടമായി ഞാനങ്ങനെ വിചാരിക്കും എല്ലാ വീട്ടിലും ഇതിനെ പറ്റി പറഞ്ഞിട്ട് എല്ലാവരും ചെയ്ത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കണം എല്ലാവർക്കും നല്ല ഉപകാരമാണ് വെറുതെ നമ്മൾ അടുപ്പിൽ ഇങ്ങനെ രണ്ടുമണിക്കൂർ അതും കൊണ്ടിങ്ങനെ കത്തിച്ചിട്ടും കെടുത്തിയിട്ടും നമ്മുടെ ജീവിതം ഇങ്ങനെ ഉരുകി തീർക്കും അതിലും എത്രയോ നല്ലതാണ് സിംപിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചോറുണ്ടാക്കാം പെട്ടെന്ന് ഏതെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഒരു ഇരുപതു മിനുട്ട് കൊണ്ട് ചോറ് റെഡി ആയി അല്ലെങ്കിൽ ഇത് അടുപ്പിൽ വിറകെടുക്കാൻ പോവണം കത്തിക്കാൻ പോവണം അതുകൊണ്ട് എനിക്ക് ഓ റൈസ് കുക്കർ എനിക്ക് ഭയങ്കര സന്തോഷമായി